കാലാവസ്ഥയും സന്ദർഭവും ഒക്കെ പരിഗണിക്കുമ്പോൾ സഞ്ചാരികൾക്ക് നമ്മുടെ സ്ഥലമൊക്കെ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം ഏതെന്ന് ചോദിച്ചട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് വേനൽക്കാലം തന്നെയാണ് വേനൽക്കാലത്ത് ചൂട് ചൂട് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മുടെ പിന്നെ പാർക്ക് അതായത് നമ്മുടെ പിന്നെ പാർക്ക് കാര്യങ്ങളിലൊക്കെ അതായത് കുട്ടികൾക്ക് കളിക്കാൻ ഒക്കെ അതായത് വെള്ളത്തിൽ കളിക്കാൻ അങ്ങനത്തെ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതലും മഴക്കാലത്തൊന്നും ആരും അങ്ങനെ അങ്ങനത്തെ പരിപാടിക്കൊന്നും പോകാറില്ല മഴക്കാലത്ത് വീട്ടിലിരിക്കാൻ നോക്കും എന്നല്ലാണ്ട് പുറത്തിറങ്ങി നടക്കാൻ താല്പര്യപ്പെടുന്നവർ വളരെ കുറവായിരിക്കും ഒരു പത്ത് ശതമാനം ആൾക്കാരെ മഴക്കാലത്തൊക്കെ കാഴ്ചകൾ കാണാനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ പോവുകയുള്ളൂ പിന്നെ കൂടുതലും നമ്മളെപ്പോലെയുള്ള ആൾക്കാരൊക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വേനൽക്കാലത്താണ് കൂടുതലും പോവാൻ ഒക്കെ ശ്രമിക്കുക ഇപ്പോൾ വെള്ളത്തിൽ കളിക്കാൻ ഒക്കെ ആയാലും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ മഴക്കാലത്ത് പോയി കഴിഞ്ഞാൽ വെള്ളത്തിൽ ചാടീട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സുഖം ഉണ്ടാവില്ലല്ലോ വേനൽക്കാലത്ത് നല്ല ചൂടത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഓരോ സ്ഥലോക്കെ എക്സ്പ്ലോർ ചെയ്യാലോ പിന്നെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ബീച്ച് കാര്യങ്ങളിൽ ഒന്നും എന്തായാലും പകൽ സമയങ്ങളിൽ ഒന്നും പോയിരിക്കാൻ പറ്റില്ല കാരണം വൈകുന്നേരം തന്നെ വൈകുന്നേരം പോയി ഇരുന്നാൽ തന്നെ ആ ചൂടുള്ള സമയത്ത് നല്ല കാറ്റൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ഒരു സുഖമാണ് വർത്തമാനം ഒക്കെ പറഞ്ഞിരിക്കാനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നമുക്ക് സുഖവാണ് പിന്നെ നമുക്കെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ മേളകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണ് കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ പ്രത്യേക ഉത്സവങ്ങൾ ഓരോ അമ്പലത്തിൽ അമ്പലങ്ങളിലെ ഉത്സവങ്ങളും മേളകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണ്